ഈ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായിത് ഭൂമി സംബന്ധമായിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ പിന്നെ അതായത് കുടുംബ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് വേതന വായ്പ്പാ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റുമൊന്ന് നോക്കണം ആദ്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ തീരുവോ അതിപ്പോൾ കയ്യേറ്റം ആ ഒരു രീതിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെടും അപ്പം അതൊരു കേസാവും പിന്നെ നമ്മൾ വക്കീലിനോടും അങ്ങനെ പറഞ്ഞിട്ട് നമ്മളത് മാക്സിമം സോൾവാക്കാനാണ് ശ്രമിക്കുക പക്ഷേ നമ്മൾ അപ്പുറത്തേക്ക് എന്ന് വരുമ്പം എങ്ങനെയാണ് അത് ഇതാക്കുന്നേന്ന് അറിയില്ലല്ലോ ഇപ്പോൾ കുടുംബപരമ്പര പരമായ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പം നാലാളെ വിളിച്ച് കൂട്ടി അതായത് പോലീസ് കേസൊന്നും ആക്കണ്ട നാലാളെ വിളിച്ച് കൂട്ടീട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് റെഡിയാവുന്ന കേസാണെങ്കിൽ നമുക്കങ്ങനെ പറഞ്ഞ് റെഡിയാക്കാം കുടുംബ സംബന്ധമുള്ള കാര്യമാണെങ്കിൽ പിന്നെ വാസ് ഭൂമി സംബന്ധൊക്കെ ആയത് ആണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും കുടുംബക്കാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അതായത് പോലീസിനെ അറിയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള മെമ്പറോ പ്രസിഡൻറ്റോ പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ അവരെ അറിയിക്കുകയോ അങ്ങനക്കെ സോൾവാക്കൻ പറ്റുമോന്ന് ആദ്യം നോക്കുക